ചേച്ചിയുടെ പേരെന്താണ് ചേച്ചിയിപ്പം എന്തുവാ ചെയ്യുന്നത് എൻ്റെ പേര് ജൂലിയറ്റ് ജോബ് ഞാനൊരു ഹൗസ് വൈഫാണ് ഞാൻ കിടങ്ങറ സെൻറ്റ് ഗ്രിഗോറിയോസ് ഇടവകയിലെ ചാസ്സിൻ്റെ സെക്രട്ടറിയാണ് ചാസ്സെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവ്വീസ് സൊസൈറ്റി അതായത് ജാതിമതഭേദമന്യേ വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സൊസൈറ്റിയാണ് ചാസ്സ് ഞാനതിൻ്റെ സെക്രട്ടറിയായിട്ട് ഇപ്പം നാല് വർഷമായി സേവനമനുഷ്ഠിക്കുകയാണ് വളരെയധികം സന്തോഷം നല്കുന്നതിനോടൊപ്പം തന്നെ വളരെയധികം ടെൻസ്ഡായിട്ടുള്ള ജോലിയാണ് ടെൻസ്ഡായിഡ് മീൻസ് ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യണമതിന് വേണ്ടി ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനമെന്ന് വച്ചാൽ എനിക്കിപ്പം സന്തോഷമുണ്ടായാൽ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരുപാട് അശരണരേയും അവശരേയും സമൂഹത്തിനൊരുപാട് ബുദ്ധിമുട്ടുകളനുഭവിക്കുന്ന വിധവകൾ ഒക്കെ നമുക്ക് സഹായിക്കാൻ ഈ സംഘടന വഴി സാധിക്കുന്നുണ്ട് ചാസ്സോരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇടവകയിലാണ് എങ്കിലും രണ്ട് വിധവകൾക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ആ സഹായം കൊടുത്തു ആ സഹായം കൊടുത്തു കൊടുക്കുക മാത്രമല്ല അവർക്ക് കൊടുത്തിരിക്കുന്ന ആ സഹായ തുക കൊണ്ട് സ്വന്തമായി വരുമാനമുണ്ടാക്കാനുള്ള എന്തെങ്കിലുമൊരു മാർഗ്ഗം അവർ ചെയ്യണം അവരെ ഒരു ഏണിങ്ങ് മെമ്പറാക്കുക അതാണ് ചാസ്സിൻ്റെ ഉദ്ദേശം അല്ലാതെ പൈസായും മേടിച്ച് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുവാണെ പുട്ടടിച്ച് തീർക്കുക അതല്ല അവരെ ഒരു ഏണിങ്ങ് മെമ്പറാക്കുക അതാണ് ചാസ്സിൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള ലോണുകൾ ഞങ്ങളിവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഫീസടക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തിനക്കെ പോകുന്ന കുട്ടികൾക്ക് ഫീസടക്കാൻ മാതാപിതാക്കൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് അപ്പോഴവർ നമ്മളിവിടുന്നൊരു തുക ലോണായിട്ടവർക്ക് കൊടുക്കും ആ തുക കൃത്യമായി അവർ തിരിച്ചടക്കും നമ്മൾ ചോദിച്ചവർ മേടിക്കും കാരണം ഈ തുക കൊണ്ട് മറ്റൊരാളെ നമുക്ക് സഹായിക്കേണ്ടതാണ് അതുകൊണ്ട് കൃത്യമായി തിരിച്ചടച്ച് മറ്റൊരാളെ നമ്മൾ സഹായിക്കും അതുപോലെ തന്നെ ഭിന്ന ശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സഹായ പദ്ധതി ചാസ്സിനുണ്ട് റീഹാ റീഹാസിസെന്ന് പറയുന്നത് അത് സ്വിറ്റ്സർലാൻഡിന്നാണ് അതിൻ്റെ ഫണ്ടിങ്ങ് അതായത് ഒരുപാട് മാനസിക വളർച്ചയില്ലാത്ത കുട്ടികൾ ആ കുട്ടികളക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല മാതാപിതാക്കൾക്ക് പ്രായമായി കുട്ടികളും പ്രായപൂർത്തിയായി കഴിയുമ്പം അവരൊരു ഭാരമായി തീരുന്ന അവസ്ഥയിൽ കുറച്ച് തുക അവർക്ക് കൊടുത്ത് അവരേയും ഇതുപോലെ എന്തെങ്ങിലുവൊക്കെ പ്രവർത്തനത്തിലേർപ്പെടുത്തി ഒരു വരുമാനമാർഗ്ഗമുണ്ടാക്കുക അതായത് ആ കുട്ടികൾക്കും തോന്നണം ഞങ്ങളും വീട്ടിലേക്ക് ഒരു നേരത്തെ അരി മേടിക്കാനുള്ള വക ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള സ്വയം അഭിമാനം ബോധം അവർക്കുണ്ടാക്കിയെടുക്കുക എന്നൊരു പ്രവർത്തനവും ഈ ചാസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ മരണാനന്തര സഹായം ചാസ്സിലംഗങ്ങളായിട്ടുള്ള വ്യക്തികൾ മരണമടഞ്ഞാൽ ആ കുടുംബത്തിന് അവരുടെ മരണാനന്തര കർമ്മങ്ങൾ നിർവ്വഹിക്കാൻ ഒരു ചെറിയ ഫണ്ട് ഈ ഫണ്ട് ഇവിടെ അംഗങ്ങളായിരുന്നപ്പളീ വ്യക്തികളിൽ നിന്ന് സ്വീകരിക്കുന്ന തുകയാണ് അത് ഒരു നിശ്ചിത തുകയായിട്ടീ വ്യക്തിക്ക് തന്നെ കൊടുക്കുന്നു അങ്ങനൊരു സഹായവും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ പട്ടിണി ദാരിദ്ര്യം ഒക്കെ ഇല്ലാതെ എല്ലാ വീടുകളും ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരുദ്ദേശത്തോടു കൂടി ഞങ്ങളുടെ കിടങ്ങറ യൂണിറ്റ് ചെയ്തൊരു സംരംഭമുണ്ട് അതായത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് പലചരക്ക് സാധനങ്ങളെടുക്കുന്നത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഈ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ട് പോകുന്നത് എല്ലാവരുടേം വീട്ടിൽ ഭക്ഷണമുണ്ട് എന്ന് ഞങ്ങൾക്കുറപ്പാണ് കാരണം ഞങ്ങളെല്ലാവരും ആഹാരസാധനങ്ങൾ മേടിക്കുന്നുണ്ട് എല്ലാവരും ആഹാരം വെക്കുന്നുണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയ്കൊണ്ടിരിക്കുവാണ് അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു തുക ഞങ്ങൾ സൂക്ഷിച്ച് അതായത് ചെറിയൊരു ലാഭമെടുത്താണ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ സാധനം മേടിക്കുമ്പം പൈസ മേടിക്കുന്നില്ല ഒരു മാസത്തെ സമയം ആ വ്യക്തിക്ക് കൊടുക്കും ഈ തിരിച്ച് ഈ മേടിച്ച സാധനത്തിൻ്റെ പൈസ അടക്കാൻ അപ്പം ചെറിയൊരു തുക നമ്മൾ അവർ കൂടുതലായിട്ടവരുടെ കയ്യീന്ന് മേടിക്കും അത് സൂക്ഷിച്ച് വെച്ചിട്ട് വെള്ളപ്പൊക്കം ഇങ്ങനൊക്കെയുണ്ടാകുന്ന അവസരങ്ങളിൽ അവർക്ക് ഒരു ഭക്ഷ്യ സാധനങ്ങളെത്തിച്ച് കൊടുക്കാനുള്ളൊരു ക്രമീകരണം അങ്ങനെ സ്വന്തമായി തന്നെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി പിന്നെ വിദ്യാഭ്യാസ സഹായം സ്കൂള് തുറക്കുമ്പം അഞ്ച് ആറ് കുട്ടികൾ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളക്കെ ചെയ്യുന്നുണ്ട് ഈ ഞാനീ അവസ്ഥയിലായിരുക്കുന്ന എനിക്കങ്ങനൊരു സ്ഥാനം തന്നതിലെനിക്ക് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരുപാട് റിസ്ക്കുകളുണ്ട് നമ്മുടെ ഒരുപാട് റിലാക്സേഷൻ ടൈമുകൾ നഷ്ടപ്പെടും എങ്കിലും ഇതക്കെയൊരു ദൈവം തന്ന എനിക്ക് തന്ന ഒരവസരമയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ദൈവം എനിക്ക് തന്നൊരു വേദിയായിട്ട് ഞാനിതിനെ കാണുകയാണ്